എനിക്ക് ഇഷ്ടപ്പെട്ട ഹോബിയിലുള്ള വേറെ ഒന്നാന്ന് ഈ ചെടി വളർത്തൽ ഗാർഡനിങ് എന്ന് പറയുന്നത് ഞാനും അമ്മയും കൂടീട്ട് വീട്ടിൽ കുറെ ചെടി നട്ടിട്ടുണ്ട് അതായത് ചെമ്പരത്തി ചുവപ്പ് മഞ്ഞ വെള്ള അങ്ങനെ പല കളറിലുള്ള ചെമ്പരത്തി ഉണ്ട് നാടൻ ചെമ്പരത്തിയായാലും വാങ്ങുന്നതായാലും എല്ലാമുണ്ട് വീട്ടിൽ പിന്നെ പനിനീർ പനിനീർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പല കളറിലുള്ള പനിനീറും വീട്ടിലുണ്ട് ചട്ടിയിൽ കുഴിച്ചിട്ടിട്ടുമുണ്ട് പറമ്പിൽ എല്ലായിടവും പറമ്പ് തന്നെ കുഴിച്ചിട്ടിട്ടു എല്ലാമുണ്ട് നിറയെ പൂവുണ്ടാവും ദിവസവും പിന്നെ തോട്ട വാഴ ചോപ്പ് തോട്ട വാഴ ഉണ്ട് മഞ്ഞ തോട്ട വാഴ ഇതെല്ലാം നമ്മളുടെ പറമ്പിലുണ്ട് പിന്നെ പൂപ്പി പൂപ്പി എന്നാണ് ഞമ്മൾ ആ ചെടിക്ക് പറയാ അത് പത്ത് കളറിലുള്ള പൂപ്പി ഉണ്ട് വലിയ പൂവുള്ളതുമുണ്ട് ചെറിയ പൂവുള്ള പൂപ്പിയുമുണ്ട് പിന്നെ അതെല്ലാം ചട്ടിയിൽ നിരത്തി വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ബസിപ്പൂ ഇവിടെയെല്ലാം ബസിപ്പൂ എന്നാണ് പറയാ ആ ബസിപ്പൂ അഞ്ച് കളറിലുള്ള ബസി ചെടികളിണ്ട് അത് നല്ല ഭംഗിയാണ് പൂവ് കുറച്ച് ദിവസം നിൽക്കു ഒരു ദിവസം കൊണ്ട് പോകൂല പിന്നെ മല്ലിയില ചെണ്ട് ചെണ്ട് മല്ലി ഉണ്ട് മല്ലിക ഉണ്ട് പിന്നെ ജമന്തി ഉണ്ട് രണ്ട് കളറിലുള്ള ജമന്തി ഉണ്ട് പക്ഷേ അത് അത് വർഷത്തിൽ ഒരിക്കലേ അത് പൂ കായ്ക്കൂ എന്നാലും ബാക്കിയുള്ള പൂ പൂവുകൾ ചെമ്പരത്തിയെല്ലാം ദിവസവും പൂ കായ്ക്കുന്ന ചെമ്പരത്തിയെല്ലാം ഉണ്ട് പിന്നെ വള്ളി ചെടികൾ പല തരത്തിലുള്ള മണി പ്ലാൻറ്ണ്ട് ഇപ്പം പീടികളിലെല്ലാം കാണുന്ന പല തരത്തിലുള്ള മണി പ്ലാൻറ് വാങ്ങിയിട്ട് ഞാൻ കുപ്പിയിൽ നട്ടിട്ട് കെട്ടി തൂക്കി ഉണ്ട് നമ്മളുടെ ഓടിൻ്റെ ഇതിൽ കെട്ടി കെട്ടി തൂക്കി വെച്ചിട്ടാണ് ഉള്ളത് മ മണി പ്ലാൻറ്കൾ പിന്നെ അല്ലാതെ വള്ളി ചെടികളിൽ പടർന്ന് നിൽക്കുന്ന ചെടി പൂക്കളുള്ള ചെടികളും ഉണ്ട് ശഖുപുഷ്പം അതിലുണ്ട് നീല കളറുണ്ട് വെള്ള കളറുണ്ട് അത് നല്ല കാണാനും നല്ല ഭംഗിയാന്ന് അത് ഒരു ആയുർവേദ ചെടിയും കൂടിയാന്ന് ശഖുപുഷ്പം അങ്ങനെ നമ്മളുടെ മുറ്റം നിറയെ ചെ വള്ളി ചെടിയായാലും അല്ലാതെ ചെടിയായാലും കുറ്റി ചെടിയും എല്ലാമുണ്ട് നന്ത്യാർവട്ടം നല്ല വെള്ള കളറുള്ള നന്ത്യാർവട്ടമുണ്ട് പിന്നെ മുല്ല മുല്ല ഉണ്ട് നിത്യ മുല്ലയുണ്ട് മഴക്ക് മാത്രം കായ്ക്കുന്ന മുല്ല അത് വേറെയുണ്ട് പിന്നെ ചെക്കി പൂ ചെക്കി പൂ എന്നാന്ന് നമ്മൾ പറയാ ചെക്കി പൂ നാടൻ ചെക്കിയുണ്ട് ചുവപ്പ് അല്ലാണ്ട് മഞ്ഞയും റോസും വെള്ളയും ചെക്കി വേറെയുണ്ട് നമ്മൾ അമ്പലങ്ങളിൽ എടുക്കുന്ന ചുവപ്പ് ചെക്കി അല്ലാതെ മറ്റു കളറിലുള്ള ചെക്കി പൂവും ഉണ്ട് ഇത് ഇതുപോലെ ഒരുപാട് ചെടികൾ പുൽച്ചെടിയുണ്ട് ലില്ലി പുൽച്ചെടി പച്ച കളറിൽ പൂക്കൾ ഒന്നും ഇല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഗാർഡനിങ്ങിന് ആയിട്ട് വെക്കുന്ന കുറച്ച് ചെടികളുണ്ട് പൂക്കളില്ലാതെ ഇലകൾ കളർ ഇലകളുള്ള ഒരുപാട് ചെടികൾ വീട്ടിലുണ്ട്